കോഴിക്കോട്ടേക്ക് ഇല്ല ഞാനും കുറേ നേരമായി മഞ്ചേരിയിൽ നിന്നാണ് നിങ്ങൾ എവിടെ നിന്നാണ് വാഴത്തൂർക്ക് ഞാൻ കേ എസ് ആർ ട്ടീ സിക്ക്

ഞാൻ ഓ ആശുപത്രിയിലേക്ക് ഷുഗറ് കൊളസ്ട്രോള് എല്ലാം ച്ചെക്കെ ചെയ്യാൻ ഏ അല്ല അല്ല നിങ്ങളൊ അ മലപ്പുറത്ത് ഇറങ്ങിയപ്പോൾ മലപ്പുറത്ത് കടേലാപ്പൊ ഇവിടെ പൈസ കുറവാണ് കേസ്സാർട്ടീസി പോകാനാണ് സുഖമല്ലേ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ആ ശരി ഓക്കെ